അങ്ങനെ വള്ളിച്ചെടികളും ചെടികളുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിഷ്ടപ്പെട്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പത്തെ ട്രെൻഡ് അനുസരിച്ച് ഇപ്പത്തെ ഇപ്പത്തെ ഏറ്റവും വലിയൊരു ട്രെൻഡ് ആണ് ബോഗെയിൻ വില്ലാന്ന് പറഞ്ഞൊരു ചെടി അത് കാണുമ്പം തന്നെ നല്ല മനോഹരാണ് നല്ല വെറൈറ്റി കളേഴ്സുണ്ട് ഇപ്പം റോസുണ്ട് വൈറ്റുണ്ട് അങ്ങനത്തെ ഒരുപാട് കളറൊള്ളൊരിതാണ് കാണാൻ തന്നെ നല്ല ഐശ്വര്യാണ് ഇപ്പഴത്തെ എല്ലാ വീടുകളുടെയും മുന്നെത്തന്നെ ഒരു ബോഗെയിൻ വില്ലയെങ്കിലും ഉണ്ടായിരിക്കും കാരണം അത്രയ്ക്കും അടിപൊളിയാണ് അത്രയ്ക്കും ട്രെൻഡായുള്ള ചെടിയാണത് അത് കാണാൻ നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനാണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ വിരി ഇങ്ങനെ പകുതി വിരിയുള്ളു എന്നാൽ വിരി വിരിഞ്ഞുന്നു പറയാൻ പറ്റില്ല മൊട്ടാന്നും പറയാൻ പറ്റില്ല ഒരു രണ്ടുംക്കൂടി ഇതിലായിട്ടാ നിക്കുന്നത് അതെനിക്ക് എൻ്റെ ഫേറേറ്റാണത് അത് നല്ല രസാണ് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് എൻ്റെ വീട്ടിലുണ്ട് കുറെ വെറൈറ്റി കളേഴ്സൊക്കെയുണ്ട് എനിക്കിഷ്ടപ്പെട്ട അതാണ് ഞാനത് എവിടേലും കണ്ടിട്ടുണ്ടെങ്കിൽ തെരഞ്ഞുപിടിച്ച് അതിൻ്റെ എന്താ കൊമ്പൊക്കെ മേടിച്ച് വീട്ടിൽക്കൊണ്ടുപോയി ഇതൊക്കെ ആക്കാറുണ്ട് എനിക്കത്രയ്ക്കും ഇഷ്ടാണത് അതുകൊണ്ടാണ്